ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ നാട്ടിലുള്ളവർ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കുക അതുപോലെ തന്നെ നമ്മൾ നടക്കുവോ അതുപോലെയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുക എന്നിട്ടും ശരീര ഭാരം കുറയുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പല തരം നാട്ട് വൈദ്യങ്ങളുണ്ട് അതുപോലെ ഇപ്പം പിഴിച്ചിലോ അങ്ങനെയുള്ള തിരുമ്മുക കിഴി കുത്തുക അങ്ങനെയുള്ള പല പല കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഫുഡ് ഫുഡ് കണ്ട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ശരീരഭാരം കുറയ്ക്കാനുള്ള ഏറ്റവും വലിയ ഒരിത് പിന്നെ നമ്മുടെ അടുക്ക് എന്താണ് നമ്മള ഗ്രാമപ്രദേശം ഒക്കെ ആയതുകൊണ്ട് വലിയ വണ്ടിയും ബഹളം ഒന്നുമില്ലാത്ത സമയത്ത് നമുക്ക് വേണമെങ്കിൽ നടക്കുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഫുഡ് തന്നെ പ്രത്യേകിച്ചും നമ്മുടെ ഭക്ഷണ ക്രമങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നതിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ശരീരഭാരം ഭക്ഷണം നമ്മൾ നിയന്ത്രിച്ചാൽ മാത്രമേ ശരീരഭാരം കുറയുള്ളൂ ശരീരഭാരം കുറയാനായിട്ട് പലരും പല ചികിത്സാ രീതികളും കാര്യങ്ങളുമൊക്കെ പറയുന്നുണ്ട് തിരുമിച്ചാലൊക്കെ കുറേയൊക്കെ മാറ്റങ്ങൾ വരും എന്നാണ് പലരും പറയാറുള്ളത് നമ്മൾ ശ് നമ്മൾ തന്നെ നമ്മുടെ ശരീരം ശ്രദ്ധിച്ചാലേ ശരീരഭാരം കുറയുള്ളൂ കിഴി കുത്തുക അതുപോലെ തന്നെ തിരുമ്മുക ഇത്ര ദിവസത്തെ തിരുമ്മൽ കാര്യങ്ങൾ അങ്ങനെ ഒക്കെ വൈദ്യൻമാരുടെ അടുത്ത് പോയാൽ നല്ല നല്ല വൈ വൈദ്യശാലകളിൽ പോയാൽ അവർ കുറേ ഇത് കാര്യങ്ങളുണ്ട് അത് പോലെ പറയാനായിട്ട് നമ്മുടെ പഥ്യം അവർ പറയുന്നത് പോലുള്ള പഥ്യങ്ങൾ പിന്നെ അല്ലെങ്കിലും കഷായം കുടിക്കാം അതുപോലെ അരിഷ്ടം അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ കുറേയൊക്കെ നമ്മുടെ ശരീരഭാരം കുറയാനായിട്ട് കഷായം ഒക്കെ കുടിച്ചാൽ നല്ല ഇതാണ് കഷായം കുടിക്കുന്നതനുസരിച്ച് നമ്മുടെ വെയിറ്റ് ഒക്കെ കുറേ കുറയുന്നതാണ് ശ ശരീരം പിന്നെ അതുപോലെ ഒത്തിരിയായിട്ട് നമ്മുടെ കഷായം കുടിക്കുമ്പം നമ്മൾ ഒത്തിരി പഥ്യവും കാര്യങ്ങളളൊക്കെ ശ്രദ്ധിക്കണം ഇറച്ചി മീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തുക അങ്ങനെ അതുപോലെ ചെയ്താൽ തന്നെ കുറച്ചൊക്കെ നമ്മുടെ ശരീരഭാരത്തിന് കുറേയൊക്കെ വ്യത്യാസങ്ങൾ വരുന്നതായിരിക്കും കൂടും ഭക്ഷണം തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്രമീകരിക്കേണ്ടത് അതായത് നല്ല പോഷക ഗുണമുള്ള ഭക്ഷണം കഴിക്കുക അല്ലാതെ ഈ അമിത വണ്ണവും കാര്യങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക അതാണ് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതലായിട്ടും പിന്നെ നമ്മുടേതായ രീതിയിലുള്ള എന്ത് നമ്മൾ ഇത് എക്സർസൈസ് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യണം അതുപോലെ തന്നെ നടക്കുക എന്നുള്ളത് തന്നെ ശരീരഭാരം കുറയ്ക്കാനുള്ള ഒരിതാണ് പിന്നെ വൈദ്യന്മാർ നമുക്ക് ഒരു ഇങ്ങനെ ആവശ്യമില്ലാത്ത മരുന്നുകൾ കാര്യങ്ങൾ ഒന്നും തരുന്നില്ല അവർ വെയിറ്റ് കുറയ്ക്കാനായിട്ടുള്ള ബ് ഭക്ഷണ ക്രമീകരണം പറഞ്ഞ് തരും അതുപോലെ കഷായം കാര്യങ്ങൾ അങ്ങനെ ഉള്ളതെല്ലാം നമുക്ക് തരുന്നതായിരിക്കും നമ്മൾ അതനുസരിച്ച് അവർ പറയുന്ന രീതിക്കനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവണം അതുപോലെ തന്നെ തിരുമ്മൽ ഉണ്ട് ഉഴിച്ചിൽ ഇങ്ങനെ ഇത് കുഴമ്പൊക്കെ ഇട്ടുള്ള തിരുമ്മൽ കിഴികുത്ത് അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട് അതെല്ലാം അവർ പറയുന്ന രീതിയിൽ അനുസരിച്ച് ചെയ്താൽ നമുക്ക് കുറേ ഒക്കെ നമ്മുടെ ശരീരഭാരം നമുക്ക് തന്നെ കണ്ട്രോൾ ചെയ്യാവുന്നതാണ്